അറുപത്തി എട്ടായിരത്തി നാന്നൂറ്റി എമ്പത്തി മൂന്ന് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി ഒന്ന് നാല്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അമ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ്